എസ് ഐ ബിയിലെ ഗോൾഡ് ലോൺ സെക്ഷനല്ലേ

അതെയോ മാം നമുക്കൊരു ഒരു സ്വർണം ലോണെടുക്കുന്നതിനെ പറ്റിയിട്ടറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അക്കൗണ്ട് ഉണ്ട് നമുക്ക് അക്കൗണ്ടുണ്ട് ആ അപ്പം നമുക്കിപ്പം ഒരു പത്ത് പവന്റെയടുത്ത് വയ്ക്കാനായിട്ടാണ് അപ്പം ഏകദേശം എത്ര എമൗണ്ട് നമുക്ക് കൈയില് കിട്ടുമെന്നറിയണമായിരുന്നു ഒന്ന് അതെയോ നമുക്കിതിപ്പോള് കൂട്ടിക്കിട്ടാനായിട്ട് ഇതിലും കൂടില്ലാ കിട്ടില്ല

ട്രാൻസാക്ഷൻസൊക്കെ നടക്കുന്നുണ്ട് അതെയോ അപ്പം വരുകയാണെന്നുണ്ടെങ്കില് നമുക്ക് എന്തൊക്കെയാണ് പ്രൂഫ് വേണ്ടത് നാളെത്തന്നെ വരാനായിട്ട് പറ്റും നമ്മളിപ്പോള് അത് ഇപ്പോള് പത്ത് പവൻ വെച്ചു എന്നു വിചാരിക്കുക അപ്പം അതു കഴിഞ്ഞൊരു കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരഞ്ച് പവൻ കൂടി കൊണ്ടുവരാന്നുണ്ടെങ്കില് ഇതിന്റെ കൂട്ടത്തില്ത്തന്നെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റുമോ ആ അപ്പോള് ഇതിൻറ്റെ പലിശയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരിക

പലിശ വരുന്നത് ആ ആ അപ്പം ഇതിലും കൂടുതലായിട്ട് കിട്ടാനായിട്ട് നമുക്ക് വഴിയില്ല അല്ലേ അപ്പം ഇങ്ങനെയാണെന്നൊണ്ടെങ്കില് ഒന്നേ കാൽ ലക്ഷത്തിൻറ്റെ അടുത്തുതന്നെ കിട്ടുകയുള്ളൂ ഇത് ആ ആ അതെയോ എന്നാലപ്പോള് കാലത്താവുമ്പോള് വരണം കാലത്താവുമ്പോള് വന്നിട്ട് എങ്ങനെ മാമിനെത്തന്നെയായിട്ടാണോ വന്നുകാണേണ്ടത് ചെയ്ത് വെയ്ക്കാനായിട്ട് പറ്റും നമുക്ക് നാളെത്തന്നെ എമൗണ്ട് കിട്ടുകയും ചെയ്യും അപ്പോള് അതെത്ര നമുക്ക് എത്ര ഗ്യാപ്പിന്റെ ഉള്ളിലാണ് പുതുക്കി വയ്ക്കണ്ടതൊക്കെ

എപ്പഴാന്നുവെച്ചുകഴിഞ്ഞാല് ക്ലോസ് ചെയ്യാനും പറ്റില്ല എപ്പോള് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റുമല്ലോ ഒരുമിച്ച് കൊണ്ടു വന്നു കഴിഞ്ഞാലും ടൈം ആവണമെന്ന് നിർബന്ധമില്ലല്ലോ കിട്ടണതിനനുസരിച്ച് നമുക്കെടുക്കാനായിട്ട് പറ്റില്ലേ

ഓക്കേ മാം നാളത്തേക്കെന്തായാലും കാലത്തായിട്ടു തന്നെ വരാം നോക്കാം ആധാർ നമ്പർ ആ ആ ആ ഓക്കേ ഓക്കേ ശരിയെന്നാല് താങ്ക് യു ഉം